ഹലോ ഡോക്ടർ എനിക്ക് രണ്ടു ദിവസമായിട്ട് പനിയും തലവേദനയുമാണ് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് ഹലോ ആ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് മിനിഞ്ഞാന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചായിരുന്നു അതുപോലെ ചെറിയ ഒരു തൊണ്ടവേദന തുടങ്ങിയതാ പിന്നെ ജലദോഷമായി ഇപ്പോൾ തുമ്മൽ അങ്ങനത്തെ കാര്യങ്ങളാ പിന്നെ ഇന്ന് രാവിലെ തൊട്ടാ പനി തുടങ്ങിയത് പിന്നെ ചെറിയ ഒരു ക്ഷീണം ഒക്കെയുണ്ട് ഇല്ല പാരസെറ്റമോൾ കുടിച്ചായിരുന്നു പക്ഷെ അത് മൂന്ന് ഡോസ് ആയിട്ട് അങ്ങനെ കുടിച്ചില്ല ഒരു നേരമേ കുടിച്ചുള്ളു അപ്പോൾ അപ്പോൾ കുടിച്ചപ്പോൾ ചെറുതായിട്ട് വിയർത്ത് പോയി പനി കുറഞ്ഞിരുന്നു പിന്നേയും ഭയങ്കരമായിട്ട് പനി വന്നു ഇല്ല വേറെ ഹോസ്പിറ്റൽ ഒന്നും പോയില്ല ഇപ്പോൾ ഇങ്ങോട്ടാ വന്നത് ഭയങ്കര തണുപ്പൊക്കെ പുറത്ത് പുഴയിലായിരുന്നു കുളിച്ചത് അപ്പോൾ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതുകൊണ്ട് ആണോയെന്ന് അറിയില്ല ആ തൊണ്ടവേദന തൊണ്ടവേദന ആയിരുന്നു ആദ്യം തുടക്കം ചെറുതായിട്ട് പിന്നെയത് ചൂടുള്ള വെള്ളം കുടിച്ചപ്പോൾ അതങ്ങ് മാറി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജലദോഷം വന്നു ചെറുതായിട്ട് ഒരു മൂക്കടപ്പ് വന്നു പിന്നെ ജലദോഷമായി അത് കഴിഞ്ഞ് പിന്നെ പനി വന്നു ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ അവനും കൂടെ പകരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാ പാരസെറ്റമോൾ കുടിക്കാനുണ്ടായിരുന്നു കുടിക്കുമ്പോൾ കുറവുണ്ട് അപ്പം കുട്ടിക്ക് പാല് കൊടുക്കുന്നതുകൊണ്ട് ആ അങ്ങനെ കുടിക്കാൻ ആഹ് ആഹ് ആഹ് ആഹ് ആ വിക്സ് വിക്സ് ഒക്കെയിട്ടിട്ട് ആവി പിടിക്കാൻ പാടുണ്ടോ അതെ വിക്സ് ഇട്ടിട്ട് ആവി പിടിച്ചാർന്നു അപ്പോൾ കുറച്ചൊരു കുറവുണ്ടായിരുന്നു തൊണ്ട വേദന നല്ലവണ്ണം കുറവുണ്ടായിരുന്നു പനി ആണ് ചെറുതായിട്ട് അപ്പോൾ കുട്ടിയുള്ളതുകൊണ്ട് കാണിക്കാ കാണിക്കാമെന്ന് വിചാരിച്ചത് ആയിരുന്നു ആ ഓക്കേ ഡോക്ടർ ഓക്കേ വീട്ടിൽ വേറെ ആർക്കുമില്ല അപ്പോൾ ആ പാരസെറ്റമോൾ തന്നെ കുടിച്ചാൽ മതിയോ ആ ഓക്കേ ശരി ഡോക്ടർ ഇല്ല വീട്ടിൽ വേറെ ആർക്കുമില്ല

ഇല്ല ഇല്ല വേറെ കുഴപ്പമൊന്നുല്ല ഡോക്ടർ ഇല്ല അങ്ങനെ ഒന്നുമില്ല പനിയെ ഉള്ളു ജലദോഷം കുറഞ്ഞായിരുന്നു

ആ ഓക്കേ ഡോക്ടർ ആ ഓക്കേ ഓക്കേ ശരിയെന്നാൽ ആ ആയിക്കോട്ടെ